ഏത് തരത്തിലുള്ള ക്യാമറകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൂടുതലും ഞാൻ ഉയോഗിക്കാറുള്ളത് ഫോണിലെ ക്യാമറ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി എസ് എല് ആറ് പോലെയുള്ള ക്യാമറകള് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഫോണിലെ ക്യാമറ ഉപയൊഗിക്കാറുള്ളത് എന്റെ കൂടുതല് ചിത്രങ്ങളും ഫോണിലെ ക്യാമറയിൽ ആണ് ഉള്ളത് എന്റെ ഫോണില് വിവോ ഫോൺ ആണ് അപ്പോൾ ആ ഫോണിലാണ് കൂടുതലും ഞാന് ചിത്രങ്ങള് പകര്ത്താറുള്ളത് പക്ഷെ ഡി എസ് എല് ആറ് പോലെയുള്ള വലിയ ക്യാമറകള് കിട്ടുന്ന സാഹചര്യത്തില് അതിലാണ് പകര്ത്താറുള്ളത് രണ്ടും വളരെ വ്യത്യാസമാണ് കാരണം ചിത്രങ്ങളെന്ന് പറയുമ്പോൾ അതിന്റെ ഭംഗി അത്രയും ഒപ്പിയെടുക്കാന് സാധിക്കുന്ന തരത്തിലുള്ള ക്യാമറകളാവുമ്പോഴാണ് ആ ചിത്രത്തിന്റെ ഭംഗി നമ്മൾക്ക് അറിയാന് പറ്റുന്നത് സാധാരണ ഒരു ഫോണിൽ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ കുറഞ്ഞ അതിന്റെ ഒരു ഇതിൽ നമുക്ക് കിട്ടുകയുള്ളൂ ചിത്രത്തിന്റെ ആ ഭംഗി നമ്മൾക്ക് ഒപ്പിയെടുക്കാന് പറ്റുന്നില്ല പക്ഷെ എന്നിരുന്നാല് പോലും നമുക്ക് കൂടുതലും ഫോണിൽ ആണ് കൂടുതൽ ഇപ്പം ഒരു കായലിന്റെ ആണെങ്കിലും അല്ലാതെ ഇവിടെ തിരുവല്ലയിൽ തന്നെ എന്തെങ്കിലും മനോഹരമായിട്ടുള്ള ഫോട്ടോ സ്ഥലങ്ങൾ കാണുമ്പോഴാണെങ്കിലും കൂടുതൽ നമ്മൾ എടുക്കുന്നത് എന്താണ് ക്യാമറയിലെ ഫോട്ടോസിനാണ് ക്യാമറയിലാണ് എടുക്കാറ് കൂടുതൽ പക്ഷെ നമുക്ക്

അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ക്യാമറയുടെ ഫോണിൽ എടുക്കേണ്ടി വരുന്നത് അല്ലാണ്ട് പല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളോ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോളൊക്കെ കൂടുതലും നമ്മൾ കാണ്ന്ന സ്ഥലങ്ങള് എവിടെയെല്ലാം യാത്ര പോവുന്നവരാണ് നമ്മൾ എല്ലാവരും ഒരുപാട് സ്ഥലങ്ങൾ പോകും നമ്മൾ എന്താണ് ഓരോ സ്ഥലങ്ങൾ കാണുമ്പം ഓരോ സ്ഥലങ്ങളും തോടും അതേ പോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങൾ എന്താണ് ഇപ്പം പറയുക നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ ഫോണിലാണ് പെട്ടെന്ന് നമ്മൾ ക്യാമറാ ഡി എസ് എല് ആറ് പോലെ ക്യാമറ കൈയ്യിൽ ഉണ്ടാവണം കരുതിയിട്ട് അല്ലായിരിക്കുമല്ലോ പോകുന്നത് അപ്പം എന്റെ കൂടുതലും ഞാന് പകര്ത്തിയ ചിത്രങ്ങൾ ഫോണിലെ ക്യാമറയിലാണ് പകര്ത്തിയേക്കുന്നത് അത്

മറ്റ് പക്ഷം കൂടുതല് ചിത്രങ്ങളും എനിക്ക് എടുക്കാന് സാധിച്ചിട്ടുണ്ട് ഡി എസ് എല് ആറ് പോലെ ഒരുപാട് വ്യത്യാസമാണ് നല്ല നല്ല ഭംഗിയോടെ അല്ലെങ്കിൽ അത്രയും അതിന്റെ ഭംഗി നമുക്ക് മറ്റ് നല്ല കൂടിയ ക്യാമറയിൽ എടുക്കുമ്പോൾ അത് കിട്ടാറുണ്ട് അല്ലാത്ത പക്ഷം ഫോണിലെ ക്യാമറയിലാണ് എടുക്കാറുള്ളത് കൂടുതലും ചെയ്യാറുള്ളത്